നമ്മളിപ്പോൾ അധികവും സോഷ്യൽ മീഡിയാസും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇതിൽനിന്ന് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് ഏകദേശം അധികം രാഷ്ട്രീയപരമായിട്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ നമ്മളെല്ലാം കണ്ടുവരുന്നുള്ളത് ഈ ഇതിന് ഞാനും അതിന് കൂടുതലും നോക്കാറുള്ളതും അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യാറുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ള കണ്ടൻറ്റിനെയാണ് ഞങ്ങൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാറുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് തന്നെ ഇപ്പം അധികം രാഷ്ട്രീയപരമായിട്ടുള്ള പോസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ അതുപോലെത്തെ ഉള്ള കണ്ടൻസ് ആണ് അധികം പോസ്റ്റ് ചെയ്യുന്നത് അത് അതിപ്പോൾ സർക്കാരിനെ കുറിച്ചുള്ള വിമർശനങ്ങളെ നമുക്ക് ഇതിൽ കറക്റ്റായിട്ടു തന്നെ ഉന്നയിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെതന്നെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ പറയാ പറയാറുണ്ട് പോസ്റ്റുകളിലൂടെയും പറയാനുണ്ട് അതുപോലെതന്നെ നമ്മൾ വിമർശിക്കാനുള്ള പറ്റുന്നുണ്ട് പോസ്റ്റുകളിൽ കൂടുതൽ വരുന്നത് തന്നെ രാഷ്ട്രീയത്തിൻ്റെ പോസ്റ്റർ തന്നെയാണ് പിന്നെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഒരു ഇതാണ് സോഷ്യൽ മീഡിയ എപ്പോഴും നമുക്ക് ഒരു പേടി തരുന്ന ഒരു സംഭവമാണ് നമുക്കുള്ള നമ്മൾ ഇതിലുള്ള ഇത് സ്വകാര്യതിനെ കുറിച്ചിട്ടു നമുക്ക് ഭയങ്കര പേടി ഈ സോഷ്യൽ മീഡിയ ഇത് യൂസ് ചെയ്യുന്നവരിലൂടെ നമുക്ക് ഇതാവുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു പേടിയുള്ള ഒരു അനുഭവമാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയാനെ കുറിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് അതായത് ഇപ്പോൾ നമ്മൾ സ്വകാര്യമായ പല കാര്യങ്ങളും പല കമ്പനീസും ഡാറ്റാസും ഡാറ്റാസ് നമ്മുടെ ഇതിലുള്ള ഇത് എല്ലാ കമ്പനികൾക്കും അവൈലബളാവുന്ന കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിലൂടെ ഉള്ളത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇത് സെർച്ച് ചെയ്താൽ അതിൻ്റെ ഡാറ്റ എടുത്തിട്ട് അവർ കമ്പനിക്ക് വിൽക്കുകയും എന്ന തരത്തിലുള്ള ഒരു ഇത് ഈ സോഷ്യൽ മീഡിയാസിൻ്റെ ഇതിൽ കാണാറുണ്ട് അപ്പോൾ അത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയായ ഒരു സംഭവം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ നമ്മുടെ സ്വകാര്യതയെ ക്ക ഭയങ്കരമായിട്ട് ഒരു നമുക്ക് അത് കൊള്ളുന്നുണ്ട് അതായത് ഭയങ്കരമായിട്ട് അത് പേടി ആകുന്നുണ്ട് നമ്മളെ സ്വകാര്യതയ്ക്ക് ഭീഷണി തന്നെയാണ് ഭീഷണിയാണത് ഇതിലുള്ള ഇതെല്ലാം അതിന് ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മളിപ്പം എവിടെയെങ്കിലും ഒരു ഇത് സോഷ്യൽ മീഡീയേല് അതായത് ഏതിലെങ്കിലും സെർച്ചാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റാസ് ആ മീഡിയ എടുത്തിട്ട് അതാത് കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പിന്നെയുള്ള ഇതിൽ നമുക്ക് മെസ്സേജായിട്ടും ഇതായിട്ടും നമുക്ക് അത് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റാസും നമ്മളെ ഫോണിലുള്ള ഡാറ്റാസും എത്രത്തോളം അത് സേഫ് എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ടെന്നാൽ ഇപ്പം എല്ലാത്തിനും എല്ലാവർക്കും ആക്സിസ് ഉള്ളതുപോലെയാണ് നമുക്ക് ഇതിലുള്ളത് അതുകൊണ്ട് നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല അത്